കൃഷിക്കായിട്ട് നമ്മൾ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കും അടിസ്ഥാനപരമായിട്ട് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് കൈക്കോട്ടാണ് കൈക്കോട്ടെന്നാണ് നമ്മുടെ ഭാഷയിൽ പറയുക കൈക്കോട്ട് ഉപയോഗിച്ചിട്ട് മണ്ണൊക്കെ കിളച്ചു അത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഓരോ കൃഷിക്കും വിവിധ തരത്തിലുള്ള സ്ട്രക്ച്ചറാണ് ഉണ്ടാവുക അപ്പോൾ വാഴ കൃഷിയടെ അതേപോലെ ആകണമെന്നില്ല പൂള കൃഷി ചെയ്യുന്ന ഒരാൾ അപ്പോൾ ഓരോ കൃഷിക്കും അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കും അത് കൈക്കോട്ടാണ് അപ്പോൾ ഒരു ഉപകരണം അതുപോലെ തന്നെ പിക്കാസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഉപകരണം ഉണ്ട് പിക്കാസ് ആഴത്തിലേക്ക് കുഴിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് പിക്കാസ് ഇനി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ കൃഷിയിലേക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലെ നമുക്ക് രണ്ട് പൂത്തിൻ്റെ ഇതായിട്ട് കലപ്പ ഉപയോഗിക്കും രണ്ട് കാളയുടെ ഇടയിൽ വച്ചിട്ട് ആ മണ്ണിളക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന അതേ പ്രാചീനകാലത്തുണ്ടായിരുന്ന ടെക്നിക്ക് നമുക്ക് അറിയാം ഇന്ന് ട്രാക്ടറാണ് അതിന് ഉപയോഗിക്കുന്നത് ഇന്നത്തെ കാലത്തെ ട്രാക്ടറ് വളരെയധികവും പ്രയോജനമുള്ളതാണ് അതിലൂടെ നമുക്ക് വിത്ത് നടാനും കഴിയുമെന്നുള്ള വലിയ ഒരു അഡ്വൻ്റേജ് ഇന്നത്തെ കാലത്തെ ട്രാക്ടറുകളിൽ ഉണ്ട് ഇതിന് പുറമേ കുറേ ഉപകരണങ്ങൾ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി വളർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഉപകരണങ്ങൾ ഉദാഹരണത്തിന് കുഴി കുത്താൻ ബ്ലേഡ് വച്ചിട്ടുള്ള ഒരു ഉപകരണം അതേപോലെ തന്നെ മണ്ണ് കട്ടയാക്കാൻ അതേപോലെ തന്നെ വളം അനിയോജ്യമായ രീതിയിൽ ഉണ്ടാക്കാൻ പലതരത്തിലുള്ള കൃഷിക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ ഇപ്പം കാണാം ഈ തരത്തിൽ നമ്മുടെ നമ്മുടെ മെഷിനറീസൊക്കെ ഉപയോഗിച്ചു നമ്മൾ ഒരു കൃഷിയിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആ കർഷകന് എന്തായാലും കൂടുതൽ ലാഭം കൊയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം അവന് കൂടുതൽ പണിക്കാരെ ഇറക്കാതെ തൻ്റെ ഉപകരണങ്ങൾ കൊണ്ട് തനിക്ക് സ്വയം തന്നെ ഈ ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു കർഷകന് ട്രാക്ടറുണ്ട് എന്നുണ്ടെങ്കിൽ ആ കർഷകന് സ്വന്തം ട്രാക്ടർ ഉപയോഗിച്ച തൻ്റെ വിശാലമായിട്ടുള്ള കൃഷിയിടം സ്വന്തമായിട്ട് തന്നെ ആ കർഷകന് നന്നാക്കാൻ അത് അവിടെ കൃഷി ഇറക്കാനും നെല്ല് വിതക്കാനും അതുപോലെയുള്ള മറ്റു എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് സാധിക്കും അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തുന്ന നമുക്ക് കൃഷി കൂടുതൽ നമുക്ക് ഉന്നതമാക്കുവാൻ സാധിക്കുന്നതാണ്